ഹലോ ആ ഇത് ബെസ്റ്റ് ഷോപ്പല്ലേ അതെ ഇന്നലെ ഞാന് രാവിലെ വന്ന് കുറച്ച് സാധനങ്ങള് അവിടുന്ന് മേടിച്ചിരുന്നെ അപ്പം പലവ്യഞ്ജന ഐറ്റംസ് ഉണ്ടായിരുന്നു പച്ചക്കറി ഐറ്റംസുണ്ടായിരുന്നു പല സാധനങ്ങള് ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ ബില് ഐറ്റംസില് രണ്ടു സാധനം മിസ്സായിട്ടുണ്ട് അപ്പം അത് തന്നെയല്ല ഇത് ക്ലിയർ അല്ല ഞങ്ങളുടെ ബില്ലാണേലും ക്ലിയർ അല്ല ഇന്നലെ നിങ്ങള് പറഞ്ഞിരുന്നു ഈ ബില്ല് എന്തോ പ്രിന്റിംഗിന്റെ എന്തോ പ്രോബ്ലമാണെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇതൊന്നു ക്ലിയറാക്കി ഞങ്ങളുടെ ഈ ബില്ലൊന്നു ഓക്കെ ആക്കി തരാൻ പറ്റുമോ ഓക്കെ മാം ഞാന് എപ്പഴത്തേക്ക് വരാ വര വരണം അങ്ങോട്ടേക്ക് അതെ ഞാനിച്ചിരി ദൂരേ നിന്നാണെ വിളിക്കുന്നത് കാരണം ഇന്നലെ തന്നെ ഞാന് ഒത്തിരി ദൂരേന്നാണ് വന്നത് പക്ഷെ ഇന്നും അതേ പോലെ യാത്ര ചെയ്തു വേണം ഇതിനുവേണ്ടി വരാന് പക്ഷെ ഞങ്ങള്ക്കു ബില്ല് മസ്റ്റ് ആണ് ഓഡിറ്റിനു വെക്കാനുള്ള സാധനമായത് കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും അത് ഡിലെ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത്ര റിസ്ക് ഏറ്റെടുത്താണേലും ബസ് കയറി ഞാന് അത്രയും ദൂരെ വരുന്നത് അപ്പോൾ സാറെ യാതൊരു കാരണവശാലും ആ സമയത്ത് നിങ്ങള് അത് പറ്റത്തില്ല അത് ഡിലെ ആയി പോയെന്നൊന്നും പറഞ്ഞേക്കല്ലേ തീര്ച്ചയായിട്ടും ഇത് എനിക്കൊരു മൂന്ന് മണിക്ക് കുഴപ്പമില്ല മൂന്ന് മണിയോടു കൂടി വരാം പക്ഷെ ഓക്കെ ആയോ അപ്പം അപ്പം ഇന്നലെ ഞാനെടുത്തതിന്റെ ആ ഇന്നലെ ഞാനെടുത്തത് ഒന്ന് പലവ്യഞജനത്തില് പെട്ടതാണ് അത് ചെറുപയറും അതുപോലെ തന്നെ പരിപ്പിന്റെയാണ് ക്ലേ കയറാതെ പോയത് അന്നേരം അപ്പോൾ അത് ഇച്ചിരി ഓക്കെ കുഴപ്പമില്ല അപ്പം വളരെ നന്ദി സാറെ ഓക്കെ താങ്ക്യൂ